ഹലോ ഇത് ഡോക്ടർ അല്ലേ ഡോക്ടറേ എനിക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനിയാണ് കഴിഞ്ഞ ദിവസമേ ഭയങ്കര മഴയായിരുന്നേ അപ്പം ഒന്നു ജസ്റ്റ് ഒന്ന് ചാറ്റൽമഴയൊന്ന് ഒന്ന് ഒന്ന് ഇവിടെ നിന്നും ഷെഡ്ഡി ഒരു വെയിറ്റിങ് ഷെഡ്ഡിൽ നിന്നു ഇപ്പുറത്തെ കടയിലോട്ട് ഓടിക്കേറിയതാണ് അത്ര മഴയേ കൊണ്ടിട്ടുള്ളൂ പക്ഷേ അതുകഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെയായപ്പോൾ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഭയങ്കര തൊണ്ടവേദനയും ജലദോഷം പോലെ ഇന്ന് രാവിലെയായപ്പോൾ മേലൊക്കെ ഭയങ്കര വേദനയും പനിക്കുന്നുമുണ്ട് നന്നായിട്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല ജലദോഷം ഉണ്ട് ചുമയുണ്ട് പിന്നെ മൂക്കൊലിപ്പുണ്ട് തൊണ്ടവേദനയുണ്ട് പിന്നെ മേലും കൈയ്യുമൊക്കെ വേദനയുണ്ട് രണ്ടു പ്രാവശ്യം വൊമിറ്റും ചെയ്തു ആവിയെന്തൊക്കെ ഇട്ടിട്ടാണ് ഡോക്ടറേ പിടിക്കേണ്ടത് ഈ വൊമി അത് ഞാനങ്ങനെ ചെയ്തോളാം രണ്ടു നേരം ഡോക്ടറേ ഈ വൊമിറ്റിങ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര വിരക്തി തോന്നുവാണ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്താണ് ചെയ്യുക ആണോ എങ്ങനെ ആ അങ്ങനെ ചെയ്യാം ഡോക്ടറേ മരുന്ന് കഴിച്ചുനോക്കാം ഇപ്പോൾ ഈ ഈ പിന്നെ വെള്ളം എങ്ങനത്തെയാണ് കുടിക്കേണ്ടത് എനിക്കാണെങ്കിൽ വെള്ളം ഒരു വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ല പച്ചവെള്ളം കുടിച്ചാലും ഛർദ്ദിക്കുന്നുണ്ട് എന്താണ് ചെയ്യുക വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ കുടിക്കാനും ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റുന്നില്ല അതാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ആ തല നനയ്ക്കേണ്ട അല്ലേ

തലവേദനേന്റെ കൂടെ ഒന്നെഴുതിക്കോ ഡോക്ടറേ മരുന്ന് വേണം എനിക്ക് ഈ പനിക്കാൻ തുടങ്ങിയതിൽപിന്നെ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഭയങ്കര തലവേദനയാണ് ഈ കഫക്കെട്ടുള്ളതുകൊണ്ടാണോ ഡോക്ടറേ ഇങ്ങനെ തലവേദനയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുനിയാനൊന്നും പറ്റില്ല തലയങ്ങനൊന്നു ഇളകുമ്പോൾ തന്നെ ഭയങ്കര പെയിൻ ആണ് ആ വർക്ക് ആ ചെയ്യുന്നുണ്ട് ആ എനിക്ക് പനിൻ്റെയും പിന്നെ ചുമൻ്റെയും ജലദോഷത്തിന്റെയും പിന്നെ തലവേദനേന്റെയും മരുന്ന് ഛർദീന്റെയും കൂടെ എഴുതണം ഡോക്ടറേ എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ വന്നു കാണിക്കാം ഡോക്ടറേ

ഒക്കെ താങ്ക്യൂ ഡോക്ടറേ